ഏതൊക്കെ ടൈപ്പിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കളർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ കളർ ഏന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് കാരണം ഒരു കളർ എന്ന് പറയുമ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ ഒരു ബോൾ ഉണ്ടെങ്കിൽ അതൊരു റെഡ് കളർ ബോൾ ആണെങ്കിൽ ആ ഒരു ബോളിൽ നിന്ന് റെഡ് കളർ ഒഴിച്ച് ബാക്കി എല്ലാ കളറും നമ്മുടെ കണ്ണ് അത് അബ്സോർബ് ചെയ്യും അതല്ലാണ്ട് ബാക്കി നമ്മുടെ കണ്ണ് അബ്സോർബ് ചെയ്യാണ്ട് തിരിച്ച് റിഫ്ളക്റ്റ് ചെയ്ത് പോകുന്ന ഒരു കളർ ആണ് റെഡ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാധനം ആ ഒരു സംമ വസ്തുവിനെ നമുക്കാ ഒരു പ്രത്യേക ഒരു കളറിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഏറ്റവും അധികം കളർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ കളർ കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവേണ്ടേ ഇപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ബാക്കി എല്ലാ കളറും നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ട് നമ്മുടെ കണ്ണിലേക്ക് വരാത്തൊരു കളർ അത് റിഫ്ലെക്റ്റ് ആയി പോകുന്ന ഒരൊറ്റ കളർ അത് ബ്ലൂ ആകാശം നീല ആയതുകൊണ്ടാണ് മാത്രം ആ ആ ആകാശത്തിന് നമുക്ക് നീല കളറിൽ കാണാൻ പറ്റുന്നത് ഓരോ പാർട്ടിക്കിൾസും ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് ആകാശത്തിന് ആ ഒരു നീല കളർ വരുന്നതും അത് നമ്മൾ പഠിച്ചിട്ടില്ലേ പന്ത്രണ്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ എന്തുകൊണ്ടാണ് ആകാശത്തിന് ഒരു നീല കളർ വരുന്നത് അതേപോലെ കളർ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് നാച്ചുറലി നമുക്ക് പറയാൻ പ്രകൃതിയുടെ ഒരുകാര്യം റിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്നത് നമ്മുടെ റെയിൻബോനെ പറ്റിയാണ് പല ടൈപ്പ് ഏഴൊക്ക ടൈപ്പിൽ കളേഴ്സ് നമ്മുടെ ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കളേഴ്സ് ടിൽ റെഡ് ഏറ്റവും അവസാനം റെഡ് വരുന്നത് പോലെ റെഡ്ഡിനാണ് ഏറ്റവും കൂടുതൽ വേവ്ലെങ്ത്ത് വയലറ്റിനാണ് ഏറ്റവും കുറവ് വേവ്ലെങ്ത്ത് അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് പഠിച്ചിട്ടില്ലേ അപ്പോൾ നമുക്ക് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ആകാശത്തിലെ കളർ റെയിൻബോൻറെ കളർ അങ്ങനെ ഏറ്റവും കൂടുതൽ കളർ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരോ നേരത്ത് ഓരോ ടൈപ്പ് കളേഴ്സ് ആവും തോന്നുക ഇപ്പോൾ റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളോടുള്ള പ്രണയം അല്ലെങ്കിൽ ഒരാളോടുള്ള ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റെഡ് ഉപയോഗിക്കുന്നത് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം അകത്തെ ഒരു എനർജി വൈറ്റാലിറ്റി അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് എന്ന് പറയുന്ന കളർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ കളർ യൂസ് ചെയ്യുന്ന അതിനൊരു പ്രത്യേക തരം മീനിങ്ങ് ഉണ്ടാവും ഇപ്പോൾ ഒരാൾ മരിച്ച് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡ്രസ്സസ്സോ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമാധാനം പീസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് മീൻസ് നമ്മൾ ആ ഒരു ശരീരത്തെ നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കുന്നു ദുഃഖിക്കുന്നു ആ ഒരു കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്കാ ഓർമ വരുന്നത് വേര്എ ഒരു കാര്യം ബ്ളാക്ക് ഹോൾ എല്ലാം അബ്സോർബ് ചെയ്യും നമ്മൾ ചൂടത്തേക്ക് ഇറങ്ങുമ്പം എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഇടരുത് എന്ന് അപ്പോൾ എല്ലാവരും പറയാറില്ലേ ബ്ലാക്ക് ഇടേണ്ട എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ എല്ലാം അബ്സോർബ് ചെയ്യും തിരിച്ച് റിഫ്ലെക്റ്റ് ചെയ്യില്ല അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലെ ഹീറ്റ് അല്ലെങ്കിൽ ചൂട് ഇതൊക്ക കണ്ടൻറ് കൂടാൻ സാധ്യത സാധ്യതയല്ല എന്തായാലും നല്ലോണം കൂടും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് വൈറ്റ് കോട്ടൺ ടൈപ്പ് ഡ്രസ്സ് ഇടാൻ വൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് വന്ന് വരുന്ന ഹീറ്റ് റേഡിയേഷൻസ് വൈറ്റിൻ മേൽ കൊണ്ട് റിഫ്ലെക്റ്റ് ചെയ്ത് പോവും അതുമാത്രമല്ല വൈറ്റ് എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ ഒരു കളർ ആണ് അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ അവസാനം ഒക്കെ വെള്ള കാണിക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു എന്താണ് പ്രതി പ്രതിനിധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ള കാണിക്കുന്നത് പിന്നെ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഇൻഡ്യൻ ഫ്ളാഗ് മൂന്ന് കളേഴ്സ് സാഫ്രൺ വൈറ്റ് ആൻഡ് ഗ്രീൻ ആ കളർ ഗ്രീൻ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പ്രകൃതി പുതിയ പുതിയ തുടക്കങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാധനത്തിനെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി പിന്നെ പറ്റിയിട്ടാണ് ഗ്രീൻ എന്ന് പറഞ്ഞ ഇപ്പം നമുക്ക് ഒട്ടും മനസ്സിനൊരു സുഖമില്ലാണ്ടിരിക്കുന്ന നേരത്ത് ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങിനോക്കുക ഒരുപാടത്തേക്ക് പോവുക നമ്മുടെ മനസ്സിന് എത്രമാത്രം സമാധാനം കിട്ടുന്നു എന്നുള്ളത് നമുക്കാ ഒരു കളറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേപോലെ എന്തുകൊണ്ടാണ് ഈ കളർ എടുക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ നേരത്ത് പറഞ്ഞതുപോലെ ഓരോ നിറം ചൂസ് ചെയ്യുമ്പോഴും ആ നിറത്തിന് അതിൻറേതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു നിറം ചൂസ് ചെയ്യാൻ കാരണം